ഞാൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആ എനിക്ക് ഈ ആഴ്ചയിൽ ഇപ്പം ആ ഇന്ന് ഇപ്പം വ്യാഴാഴ്ച അടുത്ത ആഴ്ച തിങ്കളാഴ്ചയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അന്ന് വേറെ ആരും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല അപ്പോൾ തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച ഒരു നിങ്ങൾ എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും ആ അന്ന് അപ്പം അന്ന് ആ അന്ന് ആ അപ്പം നിങ്ങൾ ഒരു പത്തുമണിയൊക്കെ ആണെങ്കിലും ഞാൻ അന്ന് ഒരു ഫ്രീ ആണ് വേറെ അപ്പോയിൻറ്മെൻ്റ് ഒന്നുമില്ല അപ്പം നിങ്ങൾ നിങ്ങൾ സംസാരിച്ചു തീരാൻ പറ്റുന്ന പ്രശ്നം ആണെങ്കിൽ ഹസ്ബൻഡിന് സംശയമാണോ അതോ വേറെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ സംശയമാണോ ആ അപ്പം ഹസ്ബൻഡിന് എന്താണ് ജോലി എന്തെങ്കിലും ഓഫീസ് ജോലിയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഓഫീസിൽ വല്ലതും വർക്ക് ആണോ ഹസ്ബൻ്റിന് ഹലോ ഓഫീസ് ഓഫീസ് വർക്കാണോ ഹസ്ബൻഡിന് ഡ്രൈവർ ആണ് അപ്പം അവരും രാവിലെ പോയി വൈകുന്നേരമൊക്കെ വൈകുന്നേരം എപ്പോഴത്തേക്കാണ് വരുന്നത് രാത്രി ഓട്ടമൊക്കെയുണ്ടോ അപ്പം വീട്ടിൽ ഇരിക്കാൻ കക്ഷിക്ക് ഇഷ്ട്ടമില്ല

അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും മനസ് തുറന്ന് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരാവുന്ന പ്രശ്നമായിരിക്കും അപ്പോഴൊക്കെ അപ്പോൾ തിങ്കളാഴ്ച വരൂ രണ്ടു പേരും കൂടെ